നഗരത്തിലെയും ഗ്രാമത്തിലെയും സ്കൂളുകള് തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് സംസാരിച്ചാല് നഗരത്തിലെ സ്കൂള് എന്ന് പറയുന്നത് കൂടുതലും ആളുകള് പട്ടണവാസികളാണ് അതുകൊണ്ടു തന്നെ അവരുടെ കള്ച്ചര് എല്ലാം ആ രീതിയിലാരിക്കും ആ ഗ്രാമത്തിൽ ക് ആളുകളെന്ന് പറയുമ്പോള് അവര് പ്രധാനമായും സാധാരണക്കാരായ കൂലിത്തൊഴിലാളികളോ കര്ഷക തൊഴിലാളികളോ അങ്ങനെ ഉള്ള കുട്ടികളായിരിക്കും സാധാരണയായി ഉള്ളത് നഗരത്തിൽ ഞാൻ ഇതുപോലെ നഗരത്തിലെ കാര്യം പറയുമ്പോള് അത് പ്രധാനമായും അയിം ഹൈ സ്റ്റാറ്റസിലുള്ള ആളുകളായിരിക്കും ആയിരിക്കും ഉള്ളത് അവിടുത്തെ കുട്ടികളുടെ ജീവിത രീതികളും അവരുടെ സ്റ്റാറ്റസും എല്ലാം തന്നെ വ്യത്യാസമായിരിക്കും എല്ലാം വ്യത്യസ്തമായിരിക്കും പിന്നീട് അവിടുത്തെ ആളുകളുടെ തൊഴിലുകളും സാമ്പത്തിക അവസ്ഥയും ഒക്കെ വ്യത്യാസമായിരിക്കും അതുകൊണ്ടു തന്നെ കുട്ടികള് ഇത് കുട്ടികളും അത്തരത്തിലായിരിക്കും വളര്ന്ന് വരുന്നത് പിന്നെ കുട്ടികളുടെ ജീവിതം മലയാളം മലയാളം മറക്കുന്ന മലയാളികളെന്ന് തന്നെ ആ കുട്ടികളെ പറയാം കാരണം നല്ല രീതിയില് മലയാളികള് കേരളത്തില് താമസിക്കുന്ന കുട്ടികള് മാതൃഭാഷയെ മറന്ന് പോകുന്നൊരു കൂട്ടം കുട്ടികള് നഗരപ്രദേശങ്ങളില് വളര്ന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യവും സത്യമാണ് ഗ്രാമപ്രദേശങ്ങളിലെ കാര്യം പറയുമ്പോള് പ്രധാനമായും അവരുടെ കാഴ്ചപ്പാടുകളിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കില് അവരുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസവും അവരുടെ അവരുടെ കാഴ്ചപ്പാടുകളിലെല്ലാം ആ വ്യത്യാസമുണ്ടാവും കുട്ടികള് മണ്ണിനെ അറിഞ്ഞ് അല്ലെങ്കില് തങ്ങളുടെ തങ്ങള് വളര്ന്ന സാഹചര്യങ്ങളെ അറിഞ്ഞ് വളരുന്ന കുട്ടികളായിരിക്കും ഗ്രാമ നഗര പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ കുട്ടികള് പ്രധാനമായും കുട്ടി സാമ്പത്തിക അവസ്ഥയുമായി അവസ്ഥയില് മുന്നോട്ട് നില്ക്കുന്ന എന്തും പണം കൊടുത്ത് വാങ്ങാമെന്ന് കഴിയും കഴിയുമെന്ന് കരുതുന്ന കുട്ടികള് മണ്ണില് ചവിട്ടാന് പോലും മടിയുള്ള മണ്ണില് ചവിട്ടാനല്ലെങ്കില് മണ്ണിലിറങ്ങുന്നത് കഥാകാരന്റെ ഭാഷയില് പറഞ്ഞാല് മണ്ണ് ഇച്ചീച്ചിയാണെന്ന് കരുതുന്ന ഒരു വലിയൊരു സമൂഹം കുട്ടികള് ഈ സമൂഹമെന്താണെന്നോ അല്ലെങ്കിലിവിടെ എതൊക്കെ തരത്തിലുള്ള ആളുകള് വാ ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെന്താണെന്നോ അറിയാതെ വളര്ന്ന് വരുന്ന ഒരു കൂട്ടം സ്കൂളുകള് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സംസാരം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന എം മാതൃഭാഷയെ മറക്കുന്ന അല്ലെങ്കില് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവരുടെ പേരന്സ് തന്നെ അത് സമ്മതിക്കാത്ത ഒരു കൂട്ടം കുട്ടികളെ വളര്ത്തിക്കൊണ്ട് വരുന്നു അത് സാമ്പത്തികമായി അല്ലെങ്കില് വിദ്യാഭ്യാസപരമായി അവര് കുറെ അധികം മുന്നോട്ട് മുന്നില് നില്ക്കുന്നുണ്ടായിരിക്കും വിദ്യാഭ്യാസപരമായി അവർ ഏറെ മുന്നിൽ മുന്നിലായിരിക്കുമെങ്കിലും സാധാരണക്കാരായ കുട്ടികളും അവരോടൊപ്പം എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങള് സ്നേഹം ഓര്ക്കാതെ വയ്യ ആ കാര്യങ്ങള് കൂടി നമ്മളോര്ക്കേണ്ടതുണ്ട് കുട്ടികളുടെ ഭൗതികപരമായ വളര്ച്ച രണ്ട് തരങ്ങളിലും ഒരുപോലെ തന്നെയാണ് പക്ഷേ അത് വളര്ന്ന് വരാനുള്ള സാഹചര്യങ്ങള് സൃഷ്ടിക്കപ്പെടുന്നതിലാണ് വ്യത്യാസം ആ സാഹചര്യങ്ങള് സൃഷ്ടിക്കപ്പെടാനുള്ള അവസരം നഗര പ്രദേശങ്ങളിൽ സ്കൂളുകളില് പഠിക്കുന്ന കുട്ടികള്ക്ക് വളരെയുണ്ട് നമ്മള് തന്നെ പറയുമ്പോള് ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളില് ഇംഗ്ലീഷ് ഭാഷ നിര്ബന്ധമാക്കിയാല് കൂടിയും അത് നമുക്ക് അത് അവരുടെ കുട്ടികളിലേക്ക് അപ്ലേ ചെയ്യുക വളരെ വിഷമകരമാണ് കാരണം ഈ കുട്ടികള് ഈയൊരു സാഹചര്യത്തില് അല്ല റബറ് വെട്ട്കാരന്റെയോ അല്ലെങ്കില് കര്ഷക തൊഴിലാളീടെയോ കൂലിപ്പണിക്കാരനോ ഒക്കെ കുട്ടികള്ക്ക് കുറച്ച് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്ന് കരുതിയായിരിക്കും അങ്ങോട്ട് അയക്കുന്നത് പക്ഷേ അവര്ക്ക് മലയാളം കൂടി പറഞ്ഞു കൊടുക്കാതെ ഇംഗ്ലീഷടിച്ചേല്പ്പിക്കാന് കഴിയുന്ന ഒരു അവസ്ഥയായിരിക്കില്ല ഉള്ളത് പക്ഷേ ഒരു നഗരപ്രദേശങ്ങളിലെ സ്കൂളുകളെന്ന് പറയുമ്പോള് അവിടെ പ്രധാനമായും കുട്ടികള് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് ഹൈ സ്റ്റാറ്റസായി കരുതുന്ന അല്ലെങ്കില് സാമ്പത്തകമായും തൊഴില്പരമായും അത്രയേറെ ഉയര്ന്ന് നില്ക്കുന്ന ഒരു ജനതയായിരിക്കും പക്ഷേ ഒരു സമൂഹം വളര്ന്ന് വരണമെങ്കില് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും ആവശ്യമാണ് എന്നൊരു കാര്യം പോയി ഈ സമയം മറന്നു പോകുന്നു എന്നത് വളരെ വിഷമകരമായൊരു കാര്യം കൂടിയാണ് എന്ന കാര്യം നമുക്ക് പറയാതെ പറ്റില്ല അതുകൊണ്ടു തന്നെ ആ നഗരത്തില് രണ്ട് തരത്തിലെയും സ്കൂളുകള് വളരെ വ്യത്യാസമാണ് പഠന കാര്യങ്ങളിലും